നമസ്കാരം ചേച്ചി മൂന്നാറിലേക്ക് സ്വാഗതം മൂന്നാറിലെ സ്ഥലങ്ങളും ചായ തോട്ടങ്ങളും മലകളും കുന്നുകളൊക്കെ കാണാൻ ക കാണണ്ടേ എനിക്കൊരു ചായ പൈസയൊക്കെ തന്നാൽ നമുക്കൊന്ന് ആലോചിച്ച് തീരുമാനിക്കൂ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാലോ പി ഒ സിയുടെ സഹായത്താൽ നിങ്ങൾക്കൊത്തിരി സ്ഥലങ്ങളിവിടെ കാണാനുണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ സമയമാണ് നിങ്ങൾ വന്നത് എന്ത് നല്ല സമയങ്ങളാണെന്നറിയുമോ കാരണം നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ട് തീർക്കാനുണ്ട് എപ്പോഴും നല്ല കാലാവസ്ഥയല്ലേ നിങ്ങൾ വന്ന സമയവും നല്ലതാണ് നിങ്ങൾക്കിവിടെ ഒത്തിരി സ്ഥലങ്ങൾ സ്ഥലങ്ങൾ കാണാനുണ്ട് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും നിങ്ങൾക്കിഷ്ടമുള്ള സമയം വരെ നിങ്ങൾക്കിവിടെ നിൽക്കാനാകും പക്ഷേ ങ്ങള് സ്ഥലങ്ങൾ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെയായിട്ടുള്ളെങ്കിലും നിങ്ങക്കിഷ്ടം പോലെ കണ്ട് തീർക്കാനൊക്കെ സാവധാനം മതിയെങ്കിൽ അങ്ങനെ ഇതാക്കാം അല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്യുന്നതാണേൽ കുറച്ച് കൂടുതൽ ദിവസം നിൽക്കേണ്ടി വരും എന്നാലും നിങ്ങൾക്ക് നിങ്ങളാസ്വദിക്കാനല്ലേ വന്നത് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നിൽക്കാമല്ലോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ നിൽക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കെല്ലാം കണ്ട് ആസ്വദിച്ച് പോയി കൂടി ഇവിടുത്തെ റൂമിൻ്റെ വിലയൊന്നും നിങ്ങൾ ആലോചിച്ച് കൂടുതൽ വിഷമിക്കണ്ട ഇതൊന്നുമില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം കാരണം എന്നാന്നു വെച്ചാൽ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരുപാട് വീടുകളിലൊക്കെ റൂമൊക്കെയുണ്ട് അതൊന്നും നിങ്ങൾ ടെൻഷൻ ആ പേടിക്കുകയേ ചെയ്യേണ്ട കാരണം ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെയേ ഒരു കുടുംബത്തിന് വരു അത് മാത്രമല്ല നിങ്ങൾക്ക് രാവിലത്തെ ചായ ഉണ്ടാവും പ്രഭാത ഭക്ഷണങ്ങളുണ്ടാവും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കുളിക്കാനും ചൂട് വെള്ളം എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല മെത്തയായിരിക്കും നിങ്ങൾക്ക് കുളിക്കാനും കുടിക്കാനൊക്കെയായിട്ട് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഉണ്ടാകും അതൊന്നും പൈസയുടെ കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് എന്നാലും എല്ലാവരും അന്വേഷിച്ച് വരുന്നത് ഇരവികുളം ദേശീയ പാർക്ക് ചായതോട്ടം വെള്ളച്ചാട്ടം ആന സവാരി പിന്നെ മസ്സാജ് അതൊക്കെയാണ് പിന്നെ തേക്കടിയും ഇടുക്കിയും ഇതൊക്കെ ഇതിനടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവിടെയും കണ്ടാസ്വദിച്ചിട്ട് പോകാലോ അവിടെ ഒക്കെയാണെങ്കിലും കുണ്ടറ തടാകവും മാട്ടുപെട്ടി ഡാമും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങൾ വരുന്ന സമയത്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ് നമ്മുടെ മൂന്നാറുകാർക്ക് സ്വന്തമായിട്ടുള്ളത് നീലക്കുറിഞ്ഞി അതിപ്പോൾ പൂത്ത് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്കതൊക്കെ കണ്ടാസ്വദിച്ച് പോകാലോ അത് വലിയ പൈസയൊന്നും വരില്ല കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം താമസിക്കുന്ന പോലെ ഇരിക്കും നിങ്ങൾക്ക് വലിയ വലിയ ആ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ അതിൻ്റെ പൈസ വരും അല്ലാതെ ചെറിയതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത്രയും പൈസയൊക്കെ വരും അതിപ്പോൾ ചെറിഞ്ഞ് കുറഞ്ഞത് രാ എണ്ണൂറ് രൂപയൊക്കെ ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ പേടിക്കുകയേ ചെയ്യണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം ഇവിടെ നല്ല വില കൊടുത്താൽ നല്ല വലിയ ഇതായിട്ട് കിട്ടും നിങ്ങളുടെ സ്വകാര്യതയൊക്കെ മാനിച്ച് വലിയ ഒരു ഇതൊക്കെ കിട്ടും എന്നാലും നിങ്ങളാസ്വദിക്കാൻ വരുമ്പോൾ നമുക്ക് ഇവിടെ സ്ഥലങ്ങളാണല്ലോ കാണേണ്ടത് എല്ലാം കാണാനുള്ളതാണ് പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈശാലി ഗുഹക ആസ്റ്റർ ഡാമ് എല്ലാം കാണാം പിന്നെ മുതിർന്നവർക്ക് ഇവിടൊരു ബാഗ്ഗി നെറക്കം ഉണ്ട് അത് എട്ടാൾക്ക് അറുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അകത്തേയ്ക്ക് കടക്കാൻ മുതിർന്നവർക്ക് നാൽപ്പത്തഞ്ചും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് അത് നിങ്ങളെന്താണേലും തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് ബാക്കി ഈ റൂമിൻ്റെയോ നിങ്ങളുടെ ചിലവിൻ്റെയോ അതൊന്നും നിങ്ങളോർത്ത് വിഷമിക്കുകയേ വേണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിലും നമുക്ക് പോകാം നിങ്ങൾ റൂമിൻ്റെ വിലയോ അതൊന്നും കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് വിഷമിക്കണ്ട ആവശ്യമേ വരുന്നില്ല നമുക്ക് എല്ലാം ചുറ്റി കണ്ട് നിങ്ങൾ മനസ്സ് നിറഞ്ഞിട്ടെ ഞങ്ങളിനി നിങ്ങളെ ഇവിടുന്നു വിടുന്ന് വിടുന്നുള്ളു തീർച്ചയായും നിങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു കാരണം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് ചിലവ് വിചാരിച്ച് നിങ്ങളൊരിക്കലും ഇവിടുന്ന് പിൻവാങ്ങാൻ പാടില്ല കാരണം നിങ്ങളൊക്കെ കണ്ടിട്ടേ പോകാവൂ ഓക്കെ താങ്ക്സ് നന്ദി